ധ്യാനം എത്ര നേരം ധ്യാനിക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് അത് മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു അര മണിക്കൂറ് മുക്കാൽ മണിക്കൂർ വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേനും ഏകാഗ്രത കിട്ടാനായിട്ട് വളരെ അധികം ശ്രദ്ധിക്കണം അതിലൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും മനസ്സിൻ്റെ എല്ലാ വെല്ലുവിളികളെയും പിന്നെ നേരിടാനായിട്ട് ധ്യാനം ഒരു നല്ല മാർഗ്ഗമാണ് പിന്നെ വേറെ ശബ്ദം ഒന്നും ഇല്ലാതെ നല്ല ശുദ്ധവായു ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് പിന്നെ ധ്യാനം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിനും ശക്തിയും ശരീരത്തിനും ഉണർവും ഒക്കെ ഉണ്ടാവും ഉണ്ടാവുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വളരെ കുഞ്ഞുങ്ങളിലും ഒക്കെ നമ്മൾ ഇപ്പോൾ അത് പിന്നെ പഠിപ്പിച്ച് കൊടുക്കണം എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി അൽപ്പനേരം ധ്യാനിച്ച് മനസ്സിനെ റിലാക്സ് ചെയ്തുകഴിഞ്ഞാൽ മനസ്സിനെ സാന്ത്വന റിലാറിലാക്സ് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആയിട്ടുള്ള ഫലം ഉണ്ട് അപ്പോഴത്തേനും നമുക്കൊരു പുതിയ ശക്തി കിട്ടിയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ധ്യാനം ആദ്യകാലങ്ങളിലുള്ള ധ്യാനത്തിൽ ഏകാഗ്രത കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും വലിയതായിട്ട് കിട്ടിയിട്ടില്ല എന്നാൽ പോലും ശ്രമിച്ച് കൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ ഒരു ശബ്ദമോ ഒരു വേറെ ചിന്തകളോ ഒക്കെ മനസ്സിൽക്കൂടെ കടന്ന് പോകുമ്പോഴത്തേന് ഇതിനിടെ ഇതിനെ ശല്യം ചെയ്തുകൊണ്ട് എന്ത് ഈ പിന്നെ നല്ല നല്ല രീതിയിലുള്ളതൊക്കെയാണ് എപ്പോഴും നല്ല കാര്യങ്ങളാണ് ഏകാഗ്രത ഏകാഗ്രത മനുഷ്യന് എന്ത് കാര്യങ്ങൾ ആണെങ്കിലും അത് നേടിയെടുക്കണമെങ്കിൽ ഏകാഗ്രത വേണം ഏകാഗ്രതയാണ് മനസ്സിൻ്റെ പവറിന് മനസ്സ് മനസ്സ് മനസ്സിൻ്റെ ശക്തിയെ ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഏകാഗ്രതയിലൂടെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അതിനെല്ലാം നല്ല നല്ലൊരു രീതിയാണ് ധ്യാനം ഏകാഗ്രതയോടുകൂടി ശുദ്ധവായു ശ്വസിച്ച് ധ്യാനിച്ച് ഇരിക്ക് ഇരിക്കണം അത് പക്ഷേ എന്തെങ്കിലും ശബ്ദമോ ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് ആയി നമുക്ക് ശല്യമായിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ വ്യതിചലിച്ച് പോവാറുണ്ട് ചെറിയ ശബ്ദം ഏകാഗ്രമായിട്ട് ഏകാഗ്രമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഈയൊരു പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ശബ്ദം പോലും നമ്മളിൽ വലിയ ശബ്ദമായിട്ട് നമുക്ക് കേൾക്കാം പ്രകൃതിയിലുള്ളതും നമുക്ക് തോന്നുന്നതുമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ വളരെ വളരെ വളരെ വലുതായിട്ട് നമുക്ക് തോന്നും അതെൻ്റെ മൊത്തമായിട്ടുള്ള ഒരു പിന്നെ ഒരു പരിശീലനം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അതിലും മുന്നേറണം എന്നാണ് ഈ പ്രായത്തിൽ എൻ്റെ ഈ പ്രായത്തിൽ അതിൽ മുന്നേറണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടി ഞാൻ ശ്രമിക്കും തീർച്ചയായിട്ടും ശ്രമിക്കും നല്ല യോഗ ഒരു കേന്ദ്ര ഗവൺമെൻറിൻ്റെ യോഗ പരിപാടി ലോകം മൊത്തം ഇന്ന് പിന്നെ ശ്രദ്ധയാർഗി ചെന്ന് പല കാര്യങ്ങളിലും അത് പിന്നെ അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗം ആക്കിയിട്ടുണ്ട് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് യോഗ പലപ്പോളും എല്ലാം ഭാരതത്തിൽ നിന്ന് പോയ രത്നങ്ങളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നരേന്ദ്ര മോദി ഗവൺമെൻറിൻ്റെ സമയത്ത് നരേന്ദ്ര മോദി തന്നെ ഇതിനെ വളരെ അന്തർദേശീയ തലത്തിൽ വളരെ വളരെ പിന്നെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഒരു ഫലം യോഗ യോഗ ദിവസം യോഗ എന്നുള്ളൊരു സം ഒരു രീതി രീതി വേൾഡ് വേൾഡ് യോഗ യോഗാദിനം എന്നുള്ളൊരു ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നു അത് നമ്മൾ അതിൻ്റെ വില ഒന്നും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അറി ഇന്ത്യയിൽ ഇരുന്നാലോ കേരളത്തിൽ ഇരുന്നാലോ അറിയില്ല വിദേശത്തൊക്കെ പിന്നെ പോയിട്ടുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിനോട് വളരെ നമ്മൾ അറിവൊക്കെ വളരെ കുറവാണെന്ന് തോന്നിപ്പോകും അതിന് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള അറിവ് നേടിയെടുക്കണം യോഗ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം യോഗ പിന്നെ ഇതിൽ ഇത് ഇവിടുത്തെ പല ടെക്സ് വലിയ വലിയ കമ്പനികളിലൊക്കെ അതുപോലെ പിന്നെ അവരുടെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് യോഗയുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അപ്പോഴത്തേനും മനസ്സും ശരീരവും ഒക്കെ ഫ്രഷ് ആയി ഫ്രഷ് ആയി നല്ല രീതിയിൽ പിന്നെ പ്രവർത്തിക്കാൻ കഴിയും മനസ്സ് അതിനൊക്കെ മനസ്സ് ഏകാഗ്രത അല്ലാതെ ഒക്കെ ഇങ്ങനെ ചിതറി കിടന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റില്ല എന്ത് കാര്യത്തിനും ഏകാഗ്രത വേണം ഏകാഗ്രമായിട്ട് മുന്നോട്ട് എല്ലാ വെല്ലുവിളി വെല്ലിവിളികളും എല്ലാ വെല്ലുവിളികളെയും നേരിടണമെങ്കിൽ ഏകാഗ്രത വേണം പ്രത്യേകിച്ച് മാർഷ്യൽ ആർട്സ് പിന്നെ അതിനകത്തൊക്കെ ഏകാഗ്രത വളരെ അങ്ങേയറ്റത്തെ ഏകഗ്രതയാണ് വേണ്ടത് അവരൊക്കെ പിന്നെ ഇതിൽ മൃഗങ്ങളെ ഒക്കെയാണ് പിന്നെ ഇതിന് ഇനി പിന്നെ ഒരു അനുകരിക്കുന്നതും മൃഗങ്ങളുടെ ഏകാഗ്രതയും അവർ എങ്ങനെ ഇര പിടിക്കുന്നു അതുപോലത്തെ അവർ ഓരോ കാര്യങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്യുന്നു അവർ എങ്ങനെ സർവൈവ് പിന്നെ അതിജീവിക്കുന്നു ഇതൊക്കെ കാര്യങ്ങൾ പിന്നെ മൃഗങ്ങളിൽ നിന്ന് കൂടെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഭയങ്കരമായിട്ട് അമൂല്യമായിട്ടുള്ള അറിവ് അത് പിന്നെ പരിപോഷിപ്പിച്ചെടുക്കാൻ ഓരോ ഇന്ത്യക്കാരൻറെയും പിന്നെ കടമയാണ് അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കാനും